കൽപ്പറ്റ മൈജിയിൽ ഫോണാണ് ഒന്നിനും കൊള്ളുകേല കാരണം പെട്ടന്നു കയ്യിൽ നിന്നു താഴെ പോയാൽ ഡിസ്പ്ലേ കംപ്ലൈൻറ് ആകുന്നു ഗ്ലാസ് പൊട്ടുന്നു ക്യാമറ ക്യാമറയ്ക്കാണെങ്കിൽ ഒരു ക്ലിയറില്ല ഫോട്ടോ എടുക്കുന്നത് വ്യക്തമാകുന്നില്ല ഒരു കൈക്കിണങ്ങുന്നില്ല മറ്റുള്ളവർ കാണുമ്പോഴാണെങ്കിലും ഇതെന്താണ് എന്നാണ് ചോദിക്കുന്നത് ഒന്നരാടൻ ഒന്നരാടൻ മറ്റെ സ്ക്രീൻ ഗാർഡ് മാറ്റെണ്ടൊരു അവസ്ഥയാണ് ഫോൺ ഒന്നിനും ഒരു സുഖമല്ലാത്തൊരു ഫോണാണ് ഇത്